തീച്ചയായും എനിക്ക് സ്വന്തമായിട്ട് ഒരു ബിസിനസ് എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ബിസിനസ് തുടങ്ങണം എന്ന് ഭയങ്കര ആഗ്രഹമാണ് കാരണം മുന്നോട്ടുള്ള ജീവിതം ഇപ്പോൾ എല്ലാം കാലങ്ങൾ മാറി എന്തേലും ചെറിയ ഒരു ബിസിനസ് തുടങ്ങിയാലും നമുക്ക് സ്ത്രീകൾക്ക് മുൻഗണനയിലേക്ക് വരാൻ പറ്റുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരാൻ പറ്റുവാണെങ്കിൽ അതല്ലേ ഒരു ഇത് നമുക്ക് നമ്മുടേതായ രീതിയിലുള്ള നമുക്ക് നമ്മുടേത് ഇപ്പോൾ അച്ചാറിടാൻ അറിയുമെങ്കിൽ അച്ചാർ ഇടാം പിന്നെ എന്തേലും ചിപ്സ് പോലുള്ള സാധനങ്ങൾ വിൽക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യുന്നതിനോട് ഒക്കെ ഭയങ്കര താല്പര്യമാണ് അപ്പോൾ എന്തേലും ചെറിയ ഒരു ചെറുകിട ബിസിനെസ്സുകൾ സ്റ്റാർട്ട് ചെയ്യണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് പഞ്ചായത്തിൽ നിന്ന് നമ്മൾ അങ്ങനെ പറയുകയാണേൽ സ്ത്രീകൾക്ക് നമുക്ക് നല്ല അവര് പൈസ തന്ന് നമ്മളെ സഹായിക്കും നമ്മുടെ ആശയങ്ങൾ ഒക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കില് ഇപ്പോൾ എന്തേലും ഒരു ലക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ടെൽ അതാണ് നമുക്ക് എന്തെങ്കിലും സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റണം നമ്മള് പ്രായമായി എന്ന് പറഞ്ഞു നമുക്ക് എല്ലാത്തിൽ നിന്നും മാറിനിൽകാതെ ഇപ്പോഴും മുന്നോട്ട് വരാനുള്ള ചിന്താഗതി നമ്മളിൽ എല്ലാവരിലും ഉണ്ടാകണം ഇങ്ങനെ നമ്മുടെ മനസ്സിന് പ്രായം ആയിട്ടില്ല നമ്മള് അങ്ങനെ നര ബാധിച്ചു എന്ന് പറഞ്ഞ് വീട്ടിലിരുന്ന് നമുക്ക് പ്രായമായി അല്ലെങ്കിൽ എനിക്ക് അസുഖമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ തന്നെ ഇരുന്ന് പോകുകയേ ഉള്ളു നമ്മൾ എല്ലാത്തിൽ നിന്നും മുന്നോട്ട് വരാൻ പഠിക്കണം എനിക്ക് ഒരു സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങണം അതാണ് എൻ്റെ ആഗ്രഹം